ടൂർ പോകുന്നത് എനിക്ക് ഇഷ്ടമാണ് വിനോദ സഞ്ചാരങ്ങൾക്ക് പോകാറുണ്ട് കൂടുതലും ഞാൻ അമ്പലങ്ങളായിട്ടാണ് കൂടുതലും പോവുന്നത് അത് പിന്നെ വിനോദ സഞ്ചാര സ്ഥലം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാർ ഇടുക്കി മധുര ഊട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട് പിന്നെ തിരുപ്പതി പഴനി തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അങ്ങനെയുള്ള മിക്കവാറും അമ്പലങ്ങൾ വഴിയാണ് പോകുന്നത് അതാണ് കൂടുതലും ഇഷ്ടം പിന്നെ തിരക്കൊഴിഞ്ഞ സമയങ്ങൾ നോക്കിയാണ് മിക്കവാറും പോകൽ മഴ സമയത്ത് കൂടുതലുമങ്ങനെ യാത്ര ചെയ്യാറില്ല എൻ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം ചൂട് കുറച്ച് കുറഞ്ഞിരിക്കുന്ന സമയങ്ങളിലായിരിക്കും ടൂർ പോകുന്നത് അത് മിക്കവാറും ഊട്ടി കൊടേക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് മിക്കവാറും ഈ വേനൽ സമയത്ത് പോവുന്നത് പിന്നെ മഞ്ഞ് കാലങ്ങളിലും കൂടുതൽ യാത്ര മഞ്ഞുകാലത്ത് ചെയ്യാറില്ല തണുപ്പ് കൂടുതൽ ആയതുകൊണ്ട് എങ്കിലും പോകാറുണ്ട് അമ്പലങ്ങളാണ് ഈ സമയങ്ങളിലൊക്കെ മിക്കവാറും ഞാൻ കണ്ടെത്താറ് എനിക്ക് ദൈവീകമായിട്ട് കൂടുതൽ പോവുന്നതാണ് ഏറ്റവും ഇഷ്ടം പിന്നെ കുട്ടികളൊക്കെ വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഓരോ ടൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാറുണ്ട് അതാണ് ഏറ്റവും ഇഷ്ടം യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ് എന്ന് വിചാരിച്ച് അധികം യാത്രയോട് എനിക്ക് വലിയ ഇഷ്ടമില്ല കൂടുതൽ അമ്പലങ്ങളും ആയിട്ടാണ് മുന്നോട്ട് പോകാറ്